ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര വലിയൊരു പാട്ടുകാരനല്ല എങ്കിൽ പോലും എനിക്ക് പാടാനായിട്ട് ശ്വാസം എടുക്കുന്നതിന് മറ്റു ബുദ്ധി ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല സാമാന്യം ശ്വാസം എടുത്ത് തന്നെ പാടാൻ പാടാൻ കഴിയും ഒരുവിധം നന്നായിട്ട് പാടാൻ കഴിയും എന്നാൽ നമ്മൾ പാട്ട് പഠിച്ചിട്ടില്ല അതിൻറേതായിട്ടുള്ള ചില കുറവുകൾ ഉണ്ട് പാട്ടിനെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്നു ശ്വസന നിയന്ത്രണത്തിൻറെ പ്രാധാ അതിന് പ്രത്യേകിച്ച് എനിക്ക് തടസങ്ങളൊന്നും ഇല്ല സാധാരണ പാട്ടുകൾ പാടാൻ കഴിയും